ഒത്തിരി വിദ്യാഭ്യാസമുള്ള ഒരാൾ പിന്നെ നല്ല പെരുമാറ്റമുള്ള ആളാണെന്നു നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല കുറേ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും വെൽ ജോലി ഉണ്ടെങ്കിലും വെൽ ഡ്രെസ്സ്ഡ് ആണെങ്കിലും അവർ നല്ല തത്ത്വങ്ങൾ പറയുന്നുണ്ടെങ്കിലും നല്ല പെരുമാറ്റത്തിന് ഉടമയാണെന്നു നമുക്ക് പറയാൻ പറ്റില്ല അത് ഓരോരുത്തരെ ഡിപ്പന്റ് ചെയ്തിട്ടാണ് വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നന്നായിട്ട് പെരുമാറുന്ന ആൾക്കാരുണ്ട് വിദ്യാഭ്യാസം ഉള്ള എല്ലാവരേയും ആക്ഷേപിക്കുന്നില്ല ചിലവർ നന്നായി പെരുമാറുന്ന ആൾക്കാരുണ്ട് എല്ലാവരുമൊന്നുമല്ല ചിലവർ മാത്രം വളരെ മോശമായി പെരുമാറുന്നുണ്ട് അത് ഓരോ വ്യക്തികളെ സംബന്ധിക്കുന്ന കാര്യമാണ് അതിൽ വിദ്യാഭ്യാസം വിദ്യാസമ്പന്നതയല്ല എന്നുള്ളൊരു ഓപ്ഷനില്ല ഈ വ്യക്തികളെ ഡിപ്പന്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്